എൻ്റെ നാട്ടിലെ നൃത്തകൾ നര്ത്തകർ വളരെ അധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഏറ്റവും ആദ്യം അവര് നേരിടുന്ന ഒരു വെല്ലുവിളിയെന്ന് പറയുന്നത് അവർക്ക് കോസ്റ്റ്യൂം അവരുടെ നൃത്തത്തിനായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നില്ല അല്ലെങ്കില് അവരുടെ ഓർണമെൻറ്റ്സ് ലഭിക്കാൻ വളരെ അധികം പാടാണ് വേറെ ജില്ലയിൽ പോയി അവർക്കുള്ള കോസ്റ്റ്യൂമുകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അവർക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൊണ്ടുവന്ന് യൂസ് ചെയ്ത് പിൻ അങ്ങനെ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള നർത്തകർ നേരിടുന്നത് പിന്നെ അവരെ പരിശീലിപ്പിക്കാൻ അവർക്ക് പരിശീലനം കിട്ടാനായിട്ട് ഭയങ്കര വളരെ അധികം പാടാണ് അതായത് അങ്ങനെ കലാപരമായിട്ട് നൃത്തം അഭ്യസിക്കുന്ന ആൾക്കാര് വളരെയധികം കുറവാണ് കാരണം പഠിപ്പിക്കാനോ അങ്ങനെയൊരു കലാപരമായ അല്ലെങ്കില് നൃത്ത പരമായിട്ട് അവരെ പരിശീലിപ്പിക്കാനായിട്ട് അക്കാദമികളല്ലെങ്കിൽ ടീച്ചേഴ്സ് വളരെ അധികം കുറവാണ് ഞങ്ങളുടെ നാട്ടിൽ അതുതന്നെ അതുകൊണ്ടുതന്നെ നർത്തകർ വളരെ അധികം വെല്ലുവിളികൾ പരിശീലനം എന്ന ഭാഗത്തിൽ നിന്നും നേരിടുന്നുണ്ട് അവർക്ക് പരിശീലനം ലഭിക്കുന്നില്ല അവരുടെ അവർക്ക് അവരെ പരിശീലിപ്പിക്കാൻ ആൾക്കാരില്ല അങ്ങനെ അവർക്ക് അവരുടെ കലയെ അല്ലെങ്കില് അവരുടെ നൃത്തത്തെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നൃത്തമെന്ന കലയെ അവർക്ക് പുറത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ അതിനായിട്ട് പിന്തുണ വീട്ടുകാരുടെ പിന്തുണ അങ്ങനെ ഗ്രാമത്തിലല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാര് ഗ്രാമങ്ങളിൽ അവരുടെ മക്കളെ നൃത്തം എന്ന കല പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കുറവാണ് കാരണം ഈ നൃത്തമെന്ന ഇതും കല കൊണ്ട് അവർക്ക് തുടർന്ന് ജീവിക്കുവാൻ സാധിക്കില്ല എന്നുള്ള പേടി കാരണമാണ് വീട്ടുകാർ അങ്ങനെ ഒരു പിന്തുണ കൊടുക്കാത്തത് അങ്ങനെ കുറെ കുറെ വെല്ലുവിളികൾ നർത്തകർ നേരിടുന്നുണ്ട്